ഇപ്പോൾ നമ്മുടെ ഗ്രാമ പ്രദേശത്ത് കർഷകരെ സഹായിക്കാൻ വേണ്ടീട്ടുള്ള പദ്ധ്യതികള് ഇപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് ഇപ്പോൾ കൃഷിപ്പോ നമ്മള് നെല്ലിൻ്റെ കൃഷിയാണെന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് വായ്പ്പയുണ്ട് അപ്പോൾ ബാങ്കിൽ നിന്ന് വായ്പ്പയെടുത്ത് നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നാല് ശതമാനം പലിശക്ക് ലോണ് കൊടുക്കുന്നുണ്ട് ബാങ്കില് അപ്പം അത് വച്ചിട്ട് നമുക്ക് ഗോൾഡ് വക്കണന്നൊണ്ട് കാർഷിക ലോണാണ് അപ്പോൾ നമുക്ക് അതിന് ഗോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ആധാരം കാര്യങ്ങളെന്തെങ്കിലും വച്ച് കഴിഞ്ഞാൽ നമുക്ക് നാല് ശതമാനം പലിശക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പലിശ നൽകുന്നൊണ്ട് പിന്നെ നമ്മടെ ഈ കർഷകമിത്ര അതുപോലത്തെ രണ്ട് മൂന്ന് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പഞ്ചായത്തടിസ്ഥാനത്തില് ഓരോ കേന്ദ്രങ്ങളുണ്ട് അവിടെ പോയിക്കഴിഞ്ഞാൽ കർഷകർക്ക് വേണ്ടീട്ട് വിത്തും കാര്യങ്ങളും ഇപ്പോൾ എന്താ പച്ചക്കറി വിത്താണെങ്കിൽ പച്ചക്കറി വിത്ത് കിട്ടും പിന്നെ അതുപോലെ തെങ്ങും തൈ പിന്നെ ഫ്രൂട്ട്സിൻ്റെ അങ്ങനത്തെ നമുക്ക് ഇപ്പോൾ കൃഷിക്കാവശ്യമായിട്ടുള്ള സാധങ്ങളൊക്കെ അവിടുന്ന് സബ്സിഡി നിരക്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇഷ്ട്ടം പോലെ ഇതുപോലെ തന്നെ നമുക്കവടെ വേറെ സർക്കാരിൻ്റെ കീഴിലിപ്പോൾ കർഷകർക്ക് വേണ്ടീട്ട് തേങ്ങാ സംഭരണം ഇപ്പം തെങ്ങുള്ളവർക്കാണെങ്കില് തേങ്ങാ സംഭരണം ഉണ്ട് പച്ച തേങ്ങാ സംഭരണം അതേപോലത്തെ പരിപാടിയുണ്ട് പിന്നെന്താ പറയുക പിന്നെ നെല്ല് സംഭരണം നെല്ല് ഇവിടിപ്പം നമ്മള് കൊയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവര് വന്നിട്ട് കറക്റ്റ് ആയിട്ട് വന്ന് ചാക്കിലാക്കി നേരെ മെഷീന് നേരെ അവിടെ പാടത്ത് തന്നെ വച്ച് നമുക്ക് എത്രയാണോ നെല്ലുള്ളത് അത് അവര് സപ്ലൈകോയിലേക്ക് അവര് തൂക്കി അളവ് പറഞ്ഞ് തന്നിട്ട് കൊണ്ട് പൊയ്ക്കൊള്ളും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരു ഒരു മാസം അല്ലെങ്കിൽ ഇപ്പൊൾ ഒരു ആ മാക്സിമം ഒരു മാസത്തിനുള്ളിലൊക്കെ അതിൻ്റെ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും പിന്നെ നമുക്ക് വേറെ ഒരുത്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ നമുക്ക് കൃഷിക്കാവശ്യായിട്ടുള്ള ഉപകരണങ്ങള് അതൊക്കെ നമുക്ക് സബ്സിഡി നിരക്കിലിപ്പോൾ പുല്ല് വെട്ടാനുള്ള മെഷീനാണെങ്കിലും മറ്റ് ഉഴുത് മറിക്കാനുള്ള മെഷീനാണെങ്കിലും അങ്ങനത്തെ രണ്ട് മൂന്ന് മെഷീനും കാര്യങ്ങളൊക്കെ നമുക്ക് സബ്സിഡി നിരക്കിലെടുക്കാൻ പറ്റും പിന്നെ സർക്കാരിൻ്റെ ഈ പഞ്ചായത്ത് നിന്നൊക്കെ ഈ കന്നുകലി അല്ലങ്കിൽ പിന്നെ ഈ പൗൾട്ടറി ഫാം മറ്റ് കോഴികൾക്കായിട്ടുള്ള കൂടടക്കമുള്ള കോഴി വിതരണം അങ്ങനെയുള്ള പദ്ധതികളുണ്ട് അപ്പം അതുവഴി നമുക്ക് കോഴിയെ വള കോഴി വളർത്തണ്ടവർക്ക് കോഴിനെയോ കന്നുകാലികൾക്കാണെങ്കിൽ കന്നുകാലികളെയോ അങ്ങനുള്ള കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പം അതും നമുക്ക് കർഷകർക്ക് ഒരു ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്